നമ്മുടെ ഇന്ത്യയിൽ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളുടെ എണ്ണം എടുക്കുവാണെങ്കിൽ കൂടിക്കൊണ്ടിരിക്കുവാണ് അതായത് അട്രാക്റ്റീവ് ആയിട്ടുള്ളത് ഒന്നുകിൽ നാച്ചുറൽ ആയിട്ട് ഉണ്ടായത് അല്ലെങ്കിൽ മനുഷ്യ നിർമ്മിതമായി ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുവാണ് നമുക്ക് ഇന്ത്യയിലെ കുറേ സ്ഥലം കാണാം അപ്പം മറ്റു നാട് മറ്റ് രാജ്യത്തുള്ളവരെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് വളരെ അതായത് അവരെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ളത് ഒന്നുകിൽ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു ഒരു ആയിരം വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിതമായതുണ്ട് നമുക്ക് കേരളം എടുത്ത് നോക്കുവാണെങ്കിൽ കേരളത്തിന്റെ നാച്ചുറാലിറ്റി അതായത് ഇവിടെ അരുവി ഉണ്ട് തോടുകൾ പുഴ ബോട്ടിംഗ് സൗകര്യം പിന്നെ സീ ഫുഡ് അത് പിന്നെ ഈ മല നിരകൾ പാലക്കാട് ഇടുക്കി വയനാട് ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാണാൻ പ്രകൃതി രമണീയമായ സ്ഥലം ആണ് ഇടുക്കിയും വയനാടൊക്കെ കുറച്ച് മല കുറച്ച് ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്നതാണ് അങ്ങനെയുള്ള ഇത് പിന്നെ ഡാമുകൾ അതൊക്കെ കാണാനുണ്ട് ഇപ്പോൾ നമ്മൾ തമിഴ്നാട് ഭാഗം എടുക്കുവാണെങ്കിൽ അത് പിന്നെ അതായത് വർഷങ്ങൾക്ക് മുമ്പ് രാജാക്കന്മാരുടെ ഭരണകാലത്ത് ഉണ്ടാക്കിയ ടെംപിളുകൾ ടെംപിളുകൾ ആണ് അവിടെ കൂടുതൽ കാണാനുള്ളത് മഹാദേവ ക്ഷേത്രം പിന്നെ അങ്ങനെ കാഞ്ചിപുരം അതായത് ദേവി ക്ഷേത്രം അങ്ങനെയുള്ള ക്ഷേത്രങ്ങളാണ് പിന്നെ കർണാടക ഭാഗത്തും പിന്നെ രാജാക്കൻമാർ ഉണ്ടാക്കിയ കോട്ടകൾ അങ്ങനെ ഉള്ള സാധനങ്ങൾ അതായത് പിന്നെ നമുക്ക് മൈസൂരൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ കോട്ടകൾ ഒക്കെ കാണാനുണ്ട് കൊട്ടാരങ്ങൾ കാണാനുണ്ട് ഡെല്ലിയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് താജ് മഹാൽ ഉണ്ട് കുത്തബ് മിനാർ ഉണ്ട് പിന്നെ ഗേറ്റ്വേ ഓഫ് ഇന്ത്യ ഉണ്ട് സ്വർണ്ണ പാലസ് ഗോൾഡ് പാലസ് ഉണ്ട് അങ്ങനെ ഉള്ളത് പിന്നെ നമുക്ക് ഇപ്പോൾ മഞ്ഞാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത് മഞ്ഞ് അങ്ങനെയുള്ള സ്ഥലം ആണ് കാണാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉണ്ട് അതായത് ആൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം മാറിക്കൊണ്ടിരിക്കും